നിങ്ങളുടെ ആധാര് സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ബന്ധിപ്പിക്കാൻ ബന്ധിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങള്ക്ക് ബാങ്കിൽനിന്ന് ഇനി മുതൽ എടുക്കുന്ന എല്ലാ വായ്പകളിലും സബ്സിഡി കിട്ടണമെന്നുവരികിൽ നിങ്ങളുടെ ആധാര് ബാങ്കക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാൻ ഉടൻ തന്നെ നിങ്ങൾ ബന്ധിപ്പിക്കണം മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തിയിരുപത്തഞ്ചിനു മുമ്പായിട്ട് നിങ്ങളുടെ ആധാര് ബാങ്കക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചില്ലായെങ്കില് സബ്സിഡികള് നിർത്തലാക്കുമെന്നു സവിനയം അറിയിക്കുന്നു